നമ്മുടെ സ്ഥലം വയനാടാണ് അപ്പോൾ വിനോദസഞ്ചാരികളൊക്കെ അതായത് വിനോദസഞ്ചാരികളായിട്ട് ഒക്കെ ഇടപഴകിയിട്ടുണ്ടോ എന്നുവെച്ചാൽ ഒത്തിരി വിനോദസഞ്ചാരികളുണ്ട് ഇപ്പോൾ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് ഒന്നും ഇഷ്ടപെടാത്ത ആൾക്കാർ വളരെ കുറവാണല്ലോ അങ്ങനെ ഒത്തിരി വിനോദസഞ്ചാരികളുണ്ട് അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടപഴകിയിട്ടൊക്കെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതായത് അവരൊക്കെ നല്ല അത്യാവശ്യം നല്ല കമ്പനി ആയിരിക്കും നല്ല അതായത് നല്ല വൈബ് ഉള്ള ആൾക്കാരായിരിക്കും അതായത് ഇപ്പോൾ നമുക്ക് എനിക്കും ട്രിപ്പിനോടൊക്കെ താൽപര്യം ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ അവരോട് ഓരോരുത്തർ നിങ്ങൾ എവിടെയൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ട് ഏതൊക്കെ സ്ഥലമാണ് നല്ല സ്ഥലം അങ്ങനെയൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അവർ എല്ലാം പറഞ്ഞുതരും ഇപ്പോൾ ഏതൊക്കെയാണ് നല്ല സ്ഥലം നമുക്ക് അതായത് ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് മഴക്കാലത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ അതുപോലെ വേനൽകാലത്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ളതൊക്കെ അവർ പറഞ്ഞുതരും പിന്നെ നമ്മുടെ സ്ഥലത്തെ കുറിച്ചൊക്കെ നമ്മൾ ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കാറുണ്ട് അതായത് ഞങ്ങളുടെ സ്ഥലം വയനാടാണ് അതായത് നല്ല മനോഹരമായ സ്ഥലമാണ് കാടുകളും മലനിരകളും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് മൃഗങ്ങളും അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അതേപോലെ ഇവിടെ കാണാൻ അതായത് ലക്കിടി പിന്നെ പടിഞ്ഞാറത്തറ ഡാം മീൻമുട്ടി വാട്ടർഫാൾസ് പിന്നെ ഇരിപ്പ് പിന്നെ അങ്ങനെ കുറെ സ്ഥലമുണ്ട് എടയ്ക്കൽ ഗുഹ മുത്തങ്ങ വന്യജീവി സങ്കേതം പൂക്കോട് തടാകം അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് അത് ഞങ്ങള സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾ അവരോട് ഒരുപാട് നല്ല രീതിയിൽ വിവരിച്ചിട്ടുണ്ട് അവർ അതുപോലെ അത് അതായത് നമ്മളോട് ചോദിച്ചിട്ടാണല്ലോ അവരൊക്കെ പുറത്ത് നിന്ന് ആണല്ലോ വരുന്നത് അപ്പോൾ നമ്മളോട് ചോദി ചോദിക്കും എവിടെയൊക്കെ പോയാലാണ് നല്ലത് എന്നൊക്കെ നമ്മളോട് ചോദിക്കും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പിന്നെ അവർക്കും പറഞ്ഞു കൊടുക്കും നമ്മൾ ഒരറിവ് കിട്ടുവാണെങ്കിൽ നമ്മൾ അവർക്കും പറഞ്ഞു കൊടുക്കണം അതേപോലെ നമ്മൾ അത് നം നമ്മൾ അതായത് നമ്മൾ അവരോട് ചോദിച്ചു മനസിലാക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അതേപോലെ പിന്നെ അവരോടും പറഞ്ഞു കൊടുക്കണം